ഹലോ ന്യൂ ഫോം റെസ്റ്റോറൻ്റല്ലേ ആ ഓക്കെ ഓക്കെ എനിക്ക് അവിടെ ഒരു നമുക്ക് കുറച്ച് കുട എൻ്റെ കുറച്ച് കുടുംബക്കാർ കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ നമ്മളൊരു പതിനഞ്ച് പേരടുത്തുണ്ടാകും അപ്പം അത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെവ്വേറെ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയായിരിക്കും കാരണം കുറേ കുട്ടികൾ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അവരെന്നും വേറെ വേറെ ഇരുത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടേബിളിൽ തന്നെ ഒരു ഫാമിലി റൂമോ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് അപ്പ് ഉണ്ടോ അവിടെ ആ ഓക്കെ ഓക്കെ അതെ അത് അല്ല നമ്മൾ ഇപ്പം ഏത് സമയത്ത് വന്നാലാണ് നമുക്കവിടെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇപ്പം തിരക്കൊന്നുമില്ലാത്തൊരു സമയത്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ തിരക്കൊന്നുമില്ലാത്തൊരു സമയത്ത് വന്നിട്ട് നമുക്കത്രയും പേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കുമോ ആ ഒരെട്ടുമണിയാകുമ്പോൾ അല്ലെ ഓക്കെ ഓക്കെ ആ എനിക്ക് നാളെ ആയിരുന്നു വരേണ്ടത് അപ്പോൾ നാളെ ഞാൻ എട്ടു മണിയാകുമ്പോൾ വന്ന് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടി വന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കില്ലേ ഓക്കെ ഓക്കെ പാർക്കിങ്ങൊക്കെ കുഴപ്പമില്ലല്ലോ ഒരു ട്രാവലറിലാണ് ഞങ്ങൾ വരിക ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അതെ അതെ റെസ്റ്റോറൻ്റ എപ്പോഴായിരുന്നു അടക്കുന്നത് പത് പതിനൊന്ന് മണിക്കല്ലേ ഓക്കെ ഓക്കെ ആ എന്നാൽ ഞാൻ നാളെ എട്ടു മണിയാകുമ്പോഴത്തേക്ക് എത്താം എന്നാൽ ഓക്കെ